ഇപ്പോൾ നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങള് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുവാണെങ്കില് നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ തന്നെ നല്ല രീതിയിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മള് എന്താ പറയുക മാറ്റാൻ അപ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മള് കറക്റ്റ് ടൈമില് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതലായിട്ടും ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മള് ചികിത്സിക്കാൻ പോകുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കാൻ പോകുക ഇല്ലെങ്കിൽ നമ്മള് കൂടുതലായിട്ടും ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നേരിട്ട് മരുന്ന് ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ പനിയാണെങ്കിൽ അതിന് അതിനുള്ള ഒരു പാരസെറ്റമോള് കാര്യങ്ങളൊക്കെ വാങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നേരെ തന്നെ ഡോക്ടറടുത്ത് കൊണ്ട് ഡോക്ടറടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് നമ്മള് അവരുടെ ഒരിതോടെ മാത്രം ഗുളികയും കാര്യങ്ങളും ഒക്കെ വാങ്ങുവാണെങ്കില് അങ്ങനെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അതൊക്കെ നമ്മള് കറക്റ്റായിട്ട് നോക്കണം പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മള് നമ്മുടെ ശരീരം ഒന്ന് പരിശോധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും പിന്നെ കുത്തിവെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്തെങ്കിലും മെസെഞ്ചർ വാ വാക്സിനേഷനോ അങ്ങനെ എന്തേലൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെ കൂ കൂടുതലായിട്ടും ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും